ഇരുപത് പത്ത് രണ്ടായിരം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ട് മൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത് എട്ട് ഒന്ന് രണ്ടായിരത്തി നാല്